അതായത് കേരളത്തിൽ പ്രധാനമായും മലയാളമാണ് ഭാഷയായിട്ട് ഉള്ളത് അതുകൊണ്ട് പക്ഷേ പലതരം മലയാളമാണ് അതായത് മലയാളത്തിൽ തന്നെ പലതരം ശൈലികളുള്ള മലയാളങ്ങളാണ് ഉപയോഗിക്കുന്നത് തൃശ്ശൂരിലെ ശൈലി വേറെ ഇടുക്കിയിലെ ശൈലി വേറെ തിരുവനന്തപുരത്തെ ശൈലി വേറെ അങ്ങനെ കോഴിക്കോട് വേറെ അങ്ങനെ പല സംസ്ഥാനം ജില്ലകളിലും പല പല ശൈലികളാണ് ഉപയോഗിക്കുന്നത് എന്നാൽ അച്ചടി ഭാഷ എന്നുള്ളത് കോട്ടയം ജില്ലയിൽ ആണുള്ളത് കോട്ടയവും ഇടുക്കിയും ഈ രണ്ട് ജില്ലകൾക്ക് വലിയ അതായത് വലിയ വ്യത്യാസമില്ലാത്ത ഭാഷ ശൈലിയാണ് ഉള്ളത് നമ്മൾ എഴുതുന്നത് പോലെ തന്നെ എഴുതുന്നത് പോലെ തന്നെയുള്ള ഏകദേശം അതുപോലെ പോലെ തന്നെ വരുന്ന ഭാഷ ശൈലിയാണ് അതിന് ഈ രണ്ട് ജില്ലകൾക്കും ഉള്ളത് ബാക്കി എല്ലാത്തിനും വളരെയധികം വളരെയധികം വാക്കുകൾ വ്യത്യാസം വരുന്ന ശൈലികളാണ് ഉള്ളത് അതായത് ഒരു വാക്കിന് തന്നെ പല പല പല തരത്തിലുള്ള അർത്ഥങ്ങളും ഒരേ അർത്ഥമുള്ള വാക്കിന് പല പല തന്നെ വാക്കുകളും തരത്തിലെ വാക്കുകളും പല ജില്ലകളിലായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതൊക്കെ കേരളത്തിൻ്റെ ഭാഷയുടെ ഒരു പ്രാധാന്യമായും വ്യത്യസ്തതയായും നമുക്ക് പറയാവുന്നതാണ്